ആ ഇത് റെസ്നാന്ന് പറഞ്ഞ ബ്രോക്കർ അല്ലെ ആ എൻ്റെ പേര് ഷൈനാ ഞാൻ കൊച്ചിയിൽ നിന്നാണ് വിളിക്കുന്നത് ആ എനിക്ക് കണ്ണൂരേക്കൊരു വർക്കിൻ്റ ആവശ്യമായിട്ട് ഒരാറ് മാസത്തേക്ക് നിൽക്കാൻ പറ്റിയൊരു വീട് വേണായിരുന്നു അപ്പോൾ നിങ്ങളുടെ കയ്യില് വീടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് എനിക്ക് ചെറിയൊരു വീട് മതി ഒരു റൂമും ഒരു സെൻ്റർ ഹാള് ഒരടുക്കള അങ്ങനെയെല്ലാം ആയിട്ടുള്ള ഒരു കു ഒരു ചെറിയ വീട് മതി ഇല്ലില്ല ഞാനും എൻ്റെ ഭർത്താവും മാത്രമെ വരുന്നുള്ളൂ വാടക എനിക്കൊരു പത്തായിരം മുതലൊരു പതിനഞ്ചായിരം രൂപ വരെ വരുന്ന രീതിയിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്

ആ എനിക്ക് കണ്ണൂരാണ് വർക്കുള്ളത് അപ്പം റോഡ് സൈഡ് തന്നെ എനിക്ക് വേണം അപ്പം പെട്ടന്നെനിക്ക് അവര് സൈറ്റിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് പോകാനും വരാനും എനിക്ക് വേഗം പറ്റണം

ആ ഓ ശരി ശരി അഡ്വാൻസ് എത്രയാന്ന് വെച്ചാല് പറഞ്ഞോ അപ്പം അതിനനുസരിച്ച് അഡ്വാൻസ് കുറച്ച് കൂടുതല് കൊടുക്കുന്ന ടൈമില് വാടക കുറച്ച് കുറച്ചിട്ട് തരികയാണെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നു ആ ഫ്ലാറ്റായാലും കുഴപ്പമൊന്നും ഇല്ല

ഇല്ല ഫ്ലാറ്റാണെങ്കിലൊരു ഇരുപത് രൂപ വരെ കുഴപ്പമില്ല

അത് നോക്കാം എനിക്ക് കൂടുതല് വില വരുന്നത് വേണ്ട കാരണം എനിക്കൊരാറ് മാസത്തേക്ക് മാത്രം നിൽക്കണ്ടത് കൊണ്ട് അത് ചെറിയൊര് വിലയെ വരുന്നത് മതി അതില് കൂടുതല് വില വരുന്ന ഫ്ലാറ്റ് വേണ്ട വീടായാലും വേണ്ട ആ ചെയ്യാം അത് നിങ്ങള് അവരോട് സംസാരിച്ചിട്ട് എന്നോട് പറയണമെങ്കില് നന്നായിരുന്നു ഞാനേ ഈ ഇന്ന് ഇവിടുന്നു വിട്ടിട്ടുണ്ട് നാളെ രാവിലെ ഞാന് നിങ്ങള് പറയുന്ന സ്ഥലം എവടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരാം

ആ അറിയാം അറിയാം എനിക്ക് പുതിയതൊരു അതുപോലെ ചാല് അങ്ങനെ അതില് വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് കിട്ടിയാൽ നന്നായിരുന്നു കാരണം എനിക്ക് സൈറ്റ് എന്ന് പറയുന്നത് കണ്ണൂർ ടൌൺ തന്നെയാണ് ആ ഞാനെന്നാൽ നാളെ രാവിലെ നിങ്ങളെ വിളിക്കാം ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടുകയില്ലേ ആ ഓക്കെ നല്ല വൃത്തിയുള്ള ഇതായിരിക്കണെ എങ്കിൽ പിന്നെ നാളെ നമുക്ക് നേരിട്ട് കാണാം ആ ആ എന്നാൽ ശരി